എൻ്റെ പഠനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളു ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞപ്പത്തേക്കും കല്യാണമായി കല്യാണം കഴിഞ്ഞിട്ട് ശേഷം ഞാന് അക്കൗണ്ടിംഗ് കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പമൊരു അക്കൗണ്ടൻ്റ് ആയിട്ട് പിന്നെ ഒരു ഹാർഡ്വെയർ ഷോപ്പില് വർക്ക് ചെയ്യുകയാണ് ഒരു വർഷമായി ഞാനവിടെ ടാലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാലി വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിച്ചതൊക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഗവൺമെൻ്റ് കോളേജിലാണ് പിന്നെ ബികോം പഠിച്ചത് പിന്നെ പ്ലസ് ടു ഒക്കെ പഠിച്ചത് പിന്നെ നമ്മുടെ ഇവിടെ കോഴിക്കോട് പിന്നെ കോഴിക്കോട് കോളേജിലാണ് പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അതായത് ഞാൻ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പി എസ് സി നോക്കുന്നുണ്ട് പി എസ് സി കിട്ടണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ പി എസ് സി ക്കായിട്ടു ശ്രമിക്കുന്നുണ്ട് ഇപ്പം ആ ഒരു അഞ്ചു മാസമായി പി എസ് സി പഠിക്കുന്നു അപ്പോൾ പി എസ് സി ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് ഇറങ്ങും എനിക്ക് അതായത് വലിയ താല്പര്യം ഉണ്ടായിട്ട് പഠിക്കുന്ന ജോലിക്ക് പോകുന്നതല്ല പിന്നെ വീട്ടിലിരിക്കണ്ടല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാന് പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നത് ഞാന് മെയിനായിട്ട് പി എസ് സി യാണ് പി എസ് സി യിലാണ് ഞാന് ഫോക്കസ് ചെയ്തിരിക്കുന്നത്